ലോകത്തിലുള്ളതിൽ ഇൻറ്റർനാഷണൽ സിറ്റീസിൽ ഉൾപ്പെടുന്ന അഞ്ച് പേരുകളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോവുന്നത് ഒന്ന് സിംഗപ്പൂർ പിന്നെ ദുബായ് പാരിസ് ന്യൂയോർക്ക് ടോക്കിയോ ഇവയിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് പാരിസാണ്